റിയല് വീഡിയോസ് ഒക്കെ നമുക്കെടുക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് ചിലപ്പം ക്ലൈമറ്റ് വരുമ്പോഴത്തേക്കും മഞ്ഞും മഴയൊക്കെ ആവുമ്പോഴത്തേക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകള് നമുക്ക് ക്യാമറ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉപരി ഉണ്ടാവും അതുപോലെ തന്നെ ഒരാൾ തന്നെ ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഫോണ് പിടിക്കാനും റീഡ് ചെയ്യാനൊക്കെയായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് ചിലപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു മുപ്പത് സെക്കന്റ് ആണെങ്കിൽ ആ മുപ്പത് സെക്കന്റ് നിൽക്കാതെ വരുമ്പം വീഡിയോ കാണുമ്പം ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജ് കാര്യങ്ങൾ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല പിന്നെ നമ്മളുദ്ദേശിക്കുന്ന രീതിയിലുള്ള റിലീസ് കാര്യങ്ങൾ അങ്ങനെ ഇതൊന്നും നമ്മൾക്ക് കിട്ടാനുള്ള ഒരു ഇതും ഇല്ല അപ്പം അതിന്റേതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും പിന്നെ പകര്ത്താനായിട്ട് ചിലപ്പോൾ മഴയും അല്ലെങ്കിൽ മഞ്ഞോ ഇല്ലെങ്കിൽ കുടയൊക്കെ പിടിച്ചിട്ടൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഫോണും കുടയൊക്കെ പിടിച്ചു ചെയ്യാനുള്ള അങ്ങ് ഒത്തിരി ബുദ്ധിമുട്ടുകള് ഉണ്ടാവും ചിത്രങ്ങള് പകര്ത്താനായിട്ടും ചിലപ്പോൾ പകര്ത്തുന്നത് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ ഫോണിന്റെ അകത്ത് സേവ് ആകാതിരിക്കാനുള്ള സാഹചര്യം ഒത്തിരിയൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്